വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹിക നില എന്ന രീതിയിൽ ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഒരുപാട് രീതിയിലുള്ള വെല്ലുവിളികളും മറ്റും ഒക്കെ നേരിടുന്നുണ്ട് പാലക്കാട് ജില്ലയിലിപ്പോൾ വിദ്യാഭ്യാസം ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്കൊരുപാട് കോളേജുകളും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് തൊഴിൽപരമായ രീതിയിലും പാലക്കാട് മുന്നേറുന്ന ഒരുപാട് സ്ഥാപനങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ലിങ്ക സമത്ത്വം തന്നെ നോക്കുകയാണ് വെച്ചാൽ സ്ത്രീകൾക്ക് പുരുഷനും സ്ത്രീയും ഒരേ രീതിയിൽ ജോലി ചെയ്യുന്നു എന്നാൽ കിട്ടുന്ന ഇപ്പോൾ എന്താണ് വേതനം അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കൂലിയെന്നായിക്കോട്ടെ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു പലകാര്യങ്ങളും ഇപ്പോൾ നോക്കുകയാണ് വെച്ചാൽ ഒരു രാത്രി സമയത്ത് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു എന്താ പറയുക സ്വാതന്ത്രം അല്ലെങ്കിൽ അവരവിടെ സുരക്ഷിതരാണോ എന്ന് പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അങ്ങനൊരു സമൂഹത്തിലാണ് സ്ത്രീകൾ എന്താ പറയുക താ അങ്ങനെ ഒരു സമൂഹത്തിലാണ് സ്ത്രീകൾ ജീവിക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതി അതിക്രമങ്ങൾ ഒരുപാട് കൂടിവരുന്ന കാലഘട്ടമാണ് സ്ത്രീ എന്ന രീതിയിൽ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ചെറിയ വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ചെറിയ ജനിച്ച വീണ കുട്ടി പോലും ഈ ഒരു സമൂഹത്തിൽ സുരക്ഷിതരല്ലായെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്കെതിരായ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ വേണ്ടി ഒരുപാട് പദ്ധതികളും മറ്റും കാര്യങ്ങളൊക്കെയുണ്ട് പിങ്ക് പോലീസൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ കോളേജുകളിലും മറ്റെവിടെയൊക്കെയായിട്ട് പിങ്ക് പോലീസിനെ കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അതിക്രമങ്ങളും മറ്റും ഇപ്പോൾ സ്ത്രീകൾക്ക് എന്താ പറയുക വെല്ലുവിളികളൊക്കെ നേരിടുന്നു നേരിടുന്നുണ്ട്